ഞാൻ കണ്ടതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട സ്ഥലം കന്യാകുമാരി ആയിരുന്നു കന്യാകുമാരി ഞങ്ങൾ ഒരു ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആ സമയങ്ങളിലൊക്കെയാണ് പോയിരുന്നത് അന്നവിടെ നല്ല രസമുണ്ടെന്ന് ഇവിടുന്ന് ഞങ്ങൾ ഒരു രാത്രി പോയി രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടി ആയിരുന്നു ആദ്യം പോയത് ഇവിടെ നമ്മളെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലടിയിൽ പോയി അവിടൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് പദ്മനാഭസ്വാമി ക്ഷേത്രം കണ്ടു ആ അവിടത്തെ ആ വലിയ ഒരു കുളം ഉണ്ട് ആ കുളത്തിൻ്റെ ആയിലൊക്കെ പോയി അതൊക്കെ സന്ദർശിച്ച് ആ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ആയിട്ട് ഇഷ്ടപെട്ട സ്ഥലങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തെന്ന് അങ്ങനെ കന്യാകുമാരി പോയി കന്യാകുമാരി പോയവിടെ ചെന്നിറങ്ങിയപ്പോൾ കക്കകൾ കൊണ്ടുണ്ടാക്കിയ മാലകളും ഒരു പാത്രം കണ്ണാടി ങ്ങനെ കുറെ രസമുള്ള കുറെ കാഴ്ചകളവിടെ കാണാൻ കഴിഞ്ഞു എന്തൊരു ഭംഗിയുള്ള കാഴ്ച്ചകളാണ് കണ്ടത് ഓരോ കടകൾക്ക് നോക്കാൻ തന്നെയൊരു പ്രത്യേക രസമായിരുന്നു അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭാഗ്യായിട്ടാണ് കരുതിയത് അന്ന് അങ്ങനെ പോയിട്ട് കന്യാകുമാരി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് അവിടുന്ന് പിന്നെ ഞമ്മൾ ചെറിയ ബോട്ട് വഴിയാണ് വിവേകാനന്ദ പാറയിൽ കയറി അന്ന് ചെറിയ ചെറിയ ബോട്ടുകളെ ഉണ്ടായിട്ടുള്ളൂ അന്നങ്ങനെ അവിടുന്നൊരു ആ ബോട്ടിലിങ്ങനെ പോയി വിവേകാനന്ദപാറ കയറി അവിടെ വിവേകാനന്ദ സ്വാമിജിൻ്റെ പ്രതിമെൻ്റവിടെ ചെന്ന് ഒരു പത്ത് മിനുറ്റൊളം അവിടെ ഇരുന്ന് കുറെ സമയം അവിടെ പ്രാർത്ഥനയിലിരുന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ മോളൂക്കൂടെ പോയി അവിടെ മേലൊക്കെ ചെന്നപ്പം നല്ല കാഴ്ച്ചയുള്ള സമയം ഞങ്ങൾ ചെൽ അവിടെ എത്തണ സമയം ഒരു നാല് മണിയായിരുന്നു നാല് മണിക്ക് കയറീട്ട് പിന്നെ സൂര്യാസ്തമയം ആയപ്പോൾ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു ഒരാറ് മണി ഒക്കെ ആകുമ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് എറങ്ങിയത് അപ്പോൾ പിന്നെ അവിടുന്ന് അവിടുള്ളവർ പറഞ്ഞു സമയം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോരണം അങ്ങനെ തിരിച്ച് ഇങ്ങോട്ടന്നെ വന്ന് ഇവിടെ വന്നോക്കുമ്പോൾ രാത്രി ആകുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കാരണം ഓരോ കടകളിലെ ലൈറ്റുകൾ കാണാനും അവിടുള്ള ഓരോ വാ കുറെ വർണ സാധനങ്ങൾ എന്തെല്ലാം കാഴ്ച്ചകളാണ് കണ്ടത് കന്യാകുമാരിയിൽ അങ്ങനെ അവിടുന്ന് കന്യാകുമാരിന്ന് ഹോട്ടലിൽ ചെറിയൊരു ഹോട്ടൽ ആയിരുന്നു അവിടെ ചെന്ന് അവിടുന്ന് പച്ചരി ചോറാണ് അന്ന് കിട്ടിയത് ഞങ്ങൾ പോകണ സമയത്തവിടെ പച്ചരിൻ്റെ ചോറ് ഉണ്ടായിട്ടുള്ളൂന്നു അവരൊക്കെ വാ നമുക്ക് പറ്റിയ കറികളൊന്നുവല്ല അവരുടെ കറികളാണ് അങ്ങനെ ആ ചോറുണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര ഇങ്ങോട്ടന്നെ തിരിച്ച് പിന്നെ ഞങ്ങളവിടുന്ന് പോരുന്ന വഴിക്ക് ഓച്ചിറാന്നൊരു സ്ഥലമുണ്ട് നമ്മൾ മോഹൻലാലിൻ്റോരു സിനിമ ഷൂട്ട് ചെയ്തൊണ്ട് എന്താപ്പാ പടത്തിൻ്റെ പേര് മറന്നു പടത്തിൻ്റെ പേര് ഞാൻ മറന്നു ആ ഓച്ചിറന്നുള്ള ആ പാട്ട് ആ കാള ആൽ മരത്തിന് ചുറ്റിട്ടുള്ളൊരു എന്താണ് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്നുള്ള അവിടെ തിണ്ണടെ ആ കുളത്തിന്ന് മോഹൻലാൽ കുളിക്കുന്ന ആ കുളത്തിൽ അതൊക്കെ പോയി കണ്ട് അങ്ങനെ അവിടുന്ന് ഇങ്ങനെ തിരിച്ചു വന്ന് ഇങ്ങനെ പിന്നീട് എന്ന് ഇങ്ങനെ ഒരു രാത്രിയായിരുന്നു യാത്ര രാത്രി യാത്ര ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ബസ്സിൽ ഇങ്ങനെ ടുറിസ്റ്റ് ബസ്സിലായിരുന്നു പോവുന്നത് തിരിച്ച് വന്നപ്പോൾ പിന്നെ യാത്ര കഴിഞ്ഞ അങ്ങനെ എല്ലാവരും ഉറക്കത്തിലായി പിന്നീട് അങ്ങനെ ഉറങ്ങി ഇങ്ങനേണ്ട് വീട്ടിൽ നേരെ തിരിച്ച് ഇങ്ങട്ട് വന്നു അങ്ങനെ നല്ലൊരു അനുഭവമാണ് ആ ഒരു അനുഭവം ഒരിക്കലും മറക്കാൻ കഴിയാത്തോരു യാത്രയായിരുന്ന് അത് അതുകൊണ്ടാണ് ഇത്രേം വർഷമായിട്ട് ഞാൻ അത് പറയാനും ഉള്ളൊരു കാരണം കാരണം എനിക്ക് ഏറ്റോം ഇഷ്ടപെട്ട ഒരു യാത്ര കന്യാകുമാരി തിരുവനന്തപുരംന്നുള്ള ആ കാ ശ്രീ നാരായണ ഗുരു കാലടിയിൽ കൂടെയുള്ളപ്പോൾ അത് നല്ല ഇഷ്ടമായിരുന്നു അന്നത്തെ കാലത്ത് തന്നെ നല്ല ഭംഗിയായിരുന്നു ഇന്ന് ഇപ്പോൾ അവിടെന്താണുള്ളത് പിന്നെ ഞാൻ പോയിട്ടില്ല പിന്നീട് പിന്നെ പോയിട്ടുള്ളത് വയനാട് അത് ചുരം ഈ താമരശ്ശേരി ചുരം കയറിട്ടാണ് വയനാട് പോയി വയനാട് ഉള്ള ഒരു സ്ഥലമാണ് നമ്മളെ ഗുഹെലൊക്കെ പോയിട്ടുണ്ടെന്നു വയനാട് തൂക്കു പാലത്തിൻ്റെ മറ്റേ ആ കുറെ ആ പുഴയും ഡാമിൻ്റെ അവിടെ പോയി അവിടോക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് അവിടെ പിന്നവിടെ ബോട്ട് സിറ്റിക്കൂടെ പോയി വയനാട് എത്തണതിന് മുന്നേ വയനാടിൻ്റെ അവിടെ തന്നെയാണ് ആ ബോട്ട് സിറ്റി അവിടെ പോകുവാൻ ബോട്ടുകൂടെ ഒക്കെ യാത്ര ചെയ്ത് പിന്നീട് അവിടുള്ള ഓരോ കാഴ്ചകൾ കണ്ട് അങ്ങനെ നടന്നു പിന്നീട് ഞങ്ങൾ

ക്കൽ ന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് നമ്മൾ മറ്റേ മമ്മൂട്ടിൻ്റെ പഴ്സ്സിരാജ യിൽ കാണുന്നോരു സ്ഥലമുണ്ടവിടെ ഗുഹ അതിൽ പോകാൻ പോകാൻ അതിൻ്റെ ഉള്ളിൽ ചെന്ന് അതിൻ്റെ മേലെ കയറി പോകണം മല കയറി കുറെ മോളിലാണത് അവിടെ ചെന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് നല്ല തണുപ്പ് നല്ലൊരു സുഖമുള്ളൊരു അനുഭവമാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ അവിടുന്ന് തേയില കാപ്പി ചായപൊടിയൊക്കെ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ചായപ്പൊടി വാങ്ങി കാപ്പി പൊടി വാങ്ങി ഓരോ രസമുള്ള തൊപ്പികളുണ്ടെനും അവിടെ കുട്ടികൾക്ക് പറ്റിയ കളിപ്പാവകൾ കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഉള്ളതൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു രണ്ട് ബസ്സായിരുന്നു അന്ന് പോയിരുന്നത് ആ യാത്രേം നല്ല രസമുള്ളൊരു യാത്രയാന്നു എല്ലാവരും ഒരുമിച്ച് പോ പോയതുകൊണ്ട് എല്ലാവരും ഒരേ ഇതിലുള്ള യാത്രെയെന്നും അടിച്ചു പൊളിച്ച യാത്രെയെനു അങ്ങനെയുള്ള യാത്രകളൊക്കെ വളരെ ഇഷ്ട്ടമാണ് പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ പോണതും ഇഷ്ട്ടമാണ് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വളരെ ഇഷ്ട്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ